ഹലോ ചേട്ടാ ഞാൻ ഇത് ഗാന്ധി നഗർ സ്ട്രീറ്റിൽ നിന്നായിരുന്നു വിളിക്കുന്നത് ആ ഇവിടെ നമ്മുടെ സ്ട്രീറ്റിൽ ഓട്ടോകൾ എത്രമണി വരെ ഓടുന്നുണ്ടെന്ന് അറിയാവോ ആ ഓക്കേ പത്ത് മണിവരെയാണല്ലേ അതെ നൈറ്റ് ആയിട്ട് ഓട്ടോ ഓടിക്കുന്ന ഏതേലും ചേട്ടന്മാരുണ്ടോ അറിയുവോ അവർ ആരേലും ഉണ്ടെങ്കിൽ അവര കോണ്ടാക്ട് നമ്പർ എനിക്കൊന്ന് തരുവോ ആ ഓക്കേ എനിക്ക് ഇന്ന് വൈകുന്നേരം എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നാളെ വൈകുന്നേരം അപ്പോൾ എനിക്ക് ഇന്ന് നൈറ്റ് ഇവിടുന്ന് പോയാലേ നാളെ വൈകുന്നേരം ആകുമ്പോഴ്ത്തേനും അവിടെയെത്തി ഫ്രഷ് ആകാനുള്ള ടൈം കിട്ടത്തുള്ളൂ അപ്പം ഇന്ന് നൈറ്റ് പതിനൊന്ന് മണിക്ക് ബസ് ഉണ്ട് അപ്പം അതിന് പോകാനാണ് വിചാരിച്ചെക്കുന്നത് അപ്പം നൈറ്റ് എനിക്ക് ഇവിടുന്ന് അവിടെ വരെ ബസ് സ്റ്റാൻഡ് വരെ പോകാൻ എനിക്കൊരു ഓട്ടോൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ അതാ ഓക്കെ ഓക്കെ പതിനൊന്ന് മണിവരെ ബസ് ഓട്ടോ ഓടിക്കുന്ന നൈറ്റ് ചേട്ടന്മാരുണ്ടല്ലേ അവർടെ നമ്പറ് ആ എന്നാൽ ചേട്ടൻ തന്നെ ഒന്ന് വിളിച്ചു പറയുവോ ഞാൻ ഞാൻ എപ്പോഴാണ് ടൈമെന്നും എല്ലാം ഞാൻ ചേട്ടൻ്റെടുത്ത് പറയാം ചേട്ടൻ അതൊന്ന് എനിക്ക് അറേഞ്ച് ചെയ്തുതരുമായിരുന്നെങ്കിൽ നന്നായിരുന്നു ആ ഞാൻ ഇവിടുന്ന് പതിനൊന്ന് മണിയാകുമ്പോഴാണ് എനിക്ക് ബസ് സ്റ്റാൻഡിൽ എത്തേണ്ടേത് അപ്പോൾ എനിക്ക് ഒരു ഇവിടുന്നൊരു പത്തര ആകുമ്പോൾ എങ്കിലും പോകണം അപ്പോൾ ചേട്ടനൊരു പത്തര ആകുമ്പോൾ ഇവിടെ ഗാന്ധി നഗർ സ്ട്രീറ്റിൽ ലെഫ്റ് സൈഡിലൊരു ഒരു എന്താ ഒരു രണ്ടു നില വീടുണ്ട് അപ്പോൾ അവിടെ വന്ന് വരാൻ ഒന്ന് വന്നിട്ട് നിർത്തിയ മതീന്ന് പറ പിന്നെ എൻ്റെ നമ്പർ കൊടുത്താൽ മതിയെ ആ ചേട്ടൻ വരുമ്പോൾ വിളിക്കാൻ പറഞ്ഞാൽ മതി ആ ഓക്കേ ഓക്കേ താങ്ക്യൂട്ടോ